നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിലെ സ്ത്രീകൾ എന്നു പറയുന്നത് ഇന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തവർ തന്നെ ആണ് സ്വന്തം പ്രയത്നത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തവരാണ് സ്വന്തം അവകാശങ്ങളെല്ലാം മനസ്സിലാക്കി അതിനു വേണ്ടി പ്രയത്നിച്ച അതു നേടിയെടുത്തവരാണ് നമ്മുടെ സമൂഹത്തിൽ എന്റെ ചുറ്റുപാടും ഉള്ള സ്ത്രീകൾ എന്നു പറയുന്നത് പണ്ട് എന്നു പറയുമ്പം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വീട്ടുകാരുടേയും ഭരത്താവിന്റേയും നാട്ടുകാരുടേയും കുടുംബക്കാരുടേയും എല്ലാവരുടേയും സമ്മതം നേടിയെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നെന്ന് പറയുമ്പം അങ്ങനെ അല്ല സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ചിലവിൽ ജീവിക്കാനും സ്വന്തം തീരുമാനം എടുക്കാനും പ്രാപ്തരായ ഒരുപാട് പേരുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു അവസരം കിട്ടുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് പേർക്കെങ്കിലും ഈ ഒരു അവസരം കിട്ടുന്നവർ തന്നെ ആണ് ഇന്നുള്ള സ്ത്രീകൾ എന്നു പറയുന്നത് മറ്റുള്ളവരുടെ കീഴിൽ ജീവിക്കാണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായവരാണ് ഇന്നത്തെ സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും എല്ലാം വേറെ സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും അവിടെ നിൽക്കാനും എല്ലാം അനുവദിക്കുന്ന പേരെന്റസ് ആണ് ഇന്ന് ഉണ്ട് ഉള്ളത് എന്നാൽ പണ്ടെന്ന് പറയുമ്പോൾ പത്ത് കഴിയുമ്പോഴത്തേനും പിള്ളേരെ കെട്ടിച്ചു വിടുന്ന ഒരു അവസ്ഥ ആയിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇന്ന് സ്വന്തം കാലിൽ നിന്ന് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചിട്ട് കെട്ടിച്ച് വിടണം അവരെപ്പോലെ ഒരിക്കലും അവരുടെ അച്ഛൻ അവരുടെ അവരുടെ അച്ഛന്റെ അമ്മേന്റേയും ഭാവി പോലെ ആവരുത് അവരുടെ ഭാവിയെന്ന് ആഗ്രഹിക്കുന്ന പേരെന്റസ് ആണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നേയും പറയുന്നത് ആണെങ്കിൽ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ അതായത് ഒരു വെല്ലുവിളിയെന്ന് പറയാൻ വേറെയൊന്നുമല്ല ഇപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ ലെവൽ ഓഫ് എഡ്യുക്കേഷൻ അവർ രണ്ടും ഒരേ ഒരേ ഒരിതിലുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളൂ എങ്കിൽപ്പോലും ആണിനും പെണ്ണിനും കിട്ടുന്ന ശമ്പളം എന്നു പറയുന്നത് രണ്ടും വേറെ വ്യത്യസ്തമാണ് ആണിന് കിട്ടുന്ന പൈസ കുറച്ച് കൂടുതലും പെണ്ണിന് കിട്ടുന്ന പൈസ കുറച്ച് കുറവും ആണ് ഉദാഹരണം വഴി പറയുകയാണെങ്കിൽ തൊഴിലുറപ്പിന് തന്നെ ആണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പൈസയെന്നു പറയുന്നത് നാന്നൂറ്റമ്പത് രൂപയും പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പൈസയെന്ന് പറയുന്നത് മുന്നൂറ്റിച്ചില്ലറ രൂപയും ആണ് എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും ഉയർന്ന ഒരു ഒരേ ലെവൽ ഓഫ് അവർ രണ്ടും ചെയ്യുന്നത് ഒരേ പണി ആണ് ഒരേ തൊഴിൽ ആണ് അവർക്ക് കിട്ടുന്നത് അവർ കിട്ടുന്ന ചിലവ് എല്ലാം ഒരുപോലെയാണ് പക്ഷേ ആണുങ്ങക്ക് വരുന്ന പൈസയും പെണ്ണുങ്ങൾക്ക് വരുന്ന പൈസയും വെറും തീർത്തും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ആണ് സോഷ്യൽ വേറെ ഏതൊരു ഏതൊരു മേഖലയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്